നമ്മുടെ നാട്ടിൽ കലാരൂപം എന്ന് പറയുന്നത് ഈ തെയ്യം ഓട്ടംതുള്ളൽ അതേപോലെ ഉള്ള കലാരൂപങ്ങളുണ്ട് പിന്നെ കരകൗശല വസ്തുക്കൾ ഇവിടെ തടിയിൽ നിർമിക്കുന്നുണ്ട് മൺ മണ്ണ് കൊണ്ടുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നു മറ്റ് സ്ഥലങ്ങളേക്കാൾ വിഭിന്നമായ രീതിക്ക് നമ്മുടെ ഇവിടെ മൺപാത്രങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അതായത് ചട്ടി കലം അതായത് ഭക്ഷണം പാകം ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ മൺപാത്രമാണ് നമ്മുടെ ഈ മൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശില്പങ്ങൾ തടിയിൽ കൊത്തിയ ധാരാളം ശില്പങ്ങൾ ഇവിടെ വിൽപനയ്ക്കുണ്ട് ആൾക്കാർ ഒത്തിരി ചെയ്യുന്നുണ്ട് തുണിത്തരങ്ങൾ നാടൻ തുണിത്തരങ്ങൾ നമ്മുടെ ഈ കൈത്തറി വസ്ത്രങ്ങളാണ് ഇവിടെ സാധാരണ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ നമ്മുടെ നമ്മുടെ പ്രെസ്സുകളിലുള്ള അച്ചടി തന്നെയാണല്ലോ നടക്കുന്നത് മൊത്തത്തിൽ അല്ല മറ്റ് മാർഗത്തിൽ കൂടെയുള്ള ഇതൊന്നും ഇപ്പം ഇല്ല